ഹലോ ഇത് യു എഫ് ഒൻ്റെ സർവീസ് ഓഫീസല്ലേ എൻ്റെ പേര് ഷൈന ഞാൻ കണ്ണൂരിൽനിന്നാണേ വിളിക്കുന്നത് എനിക്ക് ജനുവരി ഇരുപത്തിയാറാം തിയ്യതിയിലേക്ക് വേണ്ടിയിട്ട് ഒരു കാർ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചതാണ് എനിക്ക് കണ്ണുരിൽനിന്ന് എറണാകുളത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണേ ഞാനും എൻ്റെ ഫാമിലിക്കും കൂടിയിട്ടാണ് അത് ജനുവരി ഇരുപത്തിയാറാം തിയ്യതി വൈകുന്നേരം ഒരു നാലു മണിക്ക് വന്നാൽ മതി മൂന്ന് ദിവസത്തെ ട്രിപ്പാണ് അപ്പോൾ മൂന്ന് ദിവസത്തേക്കാണ് കാർ വേണ്ടത് അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ നിങ്ങളെ സർവീസ് തന്നെ ആയിരുന്നു എടുത്തിരുന്നത് എനിക്കൊരു കാർ ഞാൻ നിങ്ങളെ ഇതിൽ നിന്ന് ബുക്ക് ചെയ്തിട്ട് വന്നായിരുന്നു അത് നല്ല കംഫർട്ടബിളായിരുന്നു നമു എനിക്കും എൻ്റെ ഫാമിലിക്കും വളരെ അധികം ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെത്തന്നെ വീണ്ടും കോൺടാക്റ്റ് ചെയ്തത് എനിക്ക് ആ സെയിം കാർ തന്നെ ഈ ഒരു ഇതിൽ ബുക്ക് ചെയ്ത് തരാൻ പറ്റുവോ അത് കെ എൽ അൻപത്തിയെട്ട് ഇരുപത്തിരണ്ട് അറുപത്തിരണ്ട് പറയുന്ന നമ്പർ വരുന്നൊരു കാറായിരുന്നു ആ കാറുതന്നെ ഈ പ്രാവശ്യവും കൂടി കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു ഞാനതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെത്തന്നെ വീണ്ടും കോൺടാക്റ്റ് ചെയ്തത് ഓക്കെ അങ്ങനെയാണ് ഞാൻ എൻ്റെ അഡ്രസ്സ് പറഞ്ഞുതരാം ജനുവരി ഇരുപത്തിയാറ് വൈകുന്നേരം നാലു മണിക്ക് ഓക്കെ ശരി എന്നാൽ